ഞാനിന്നലെ ആമസോണിന്ന് ഒരു ചുറ്റിക ഓഡറു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന്നു വന്നിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഈ ചുറ്റിക ഇന്ന് വന്ന് ഞാനിതിൻ്റെ പാക്കേജ് നോക്കിയപ്പോൾ ഇതിൻ്റെ പാക്കേജിങ് തന്നെ വളരെ മോശമായിരുന്നു മാത്രമല്ല ഞാനീ പാക്കേജ് പൊട്ടിച്ച് നോക്കിയതിന് ശേഷം ഈ ഹാമ്മറും ഞാൻ കണ്ട ഫോട്ടോയിൽ കണ്ട ഹാമറിന് ഇച്ചിരൂടെ ഒരു വലിപ്പം ഉണ്ടായിരുന്നു ഇവിടെ വന്ന ഹാമറിന് വലിപ്പം ഇല്ല ചെറിയ ചുറ്റികയാണ് ഇവിടെ വന്നത് മാത്രമല്ല തുരുമ്പെടുത്ത ചുറ്റികയായിരുന്നു പെയിൻറും പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് പറയാൻ കാരണം വളരെ മോശം ഒരു സേവനമാണ് ഇപ്പം ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഒരു പ്രൊഡക്റ്റാണ് എനിക്ക് തന്ന് വിട്ടിരിക്കുന്നത് ഞാൻ ഇതിന് കൊടുത്ത പൈസക്ക് ഇതും വെച്ച് നോക്കുക ആണെങ്കിൽ എന്നോട് ചെയ്തിരിക്കുന്നത് ഭയങ്കര മോശം പ്രവൃത്തിയാണ് കാരണം എനിക്ക് ഒരു മോശമായിട്ടുള്ള ഒരു ഹാമറാണ് അവരെനിക്ക് തന്നേക്കുന്നത് വേറൊന്നും അല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇങ്ങനെയൊക്കെ ഓൺലൈനിൽന്നു സാധനം മേടിക്കുമ്പോൾ ഇത് നല്ലതാണോ അല്ലയോന്നറിയാതെ ആയിരിക്കും നമ്മൾ മേടിക്കരുത് കാരണം നമ്മൾ പൈസ കൊടുക്കുന്നത് ഒരു കാര്യമായതുകൊണ്ട് ഇത് നോക്കീം കണ്ടും വേണം എല്ലാവരും ചെയ്യാൻ അതിനിപ്പോൾ ഒരു പരിഹാരായിട്ട് ഞാൻ പറയാണെന്ന് വെച്ചാൽ നിങ്ങളൊന്നുങ്കിൽ ഈ പ്രൊഡക്ട് ഡെലിവറി ബോയിയെ കൊണ്ട് തന്നെ അവിടെ വച്ച് തന്നെ ഇതഴിച്ച് നോക്കുക അല്ലാതെ അല്ലാത്തപക്ഷം വന്നതിനുശേഷം മാത്രമേ പേയ്മെന്റ് കൊടുക്കാന് ഉള്ളൂ അല്ലെങ്കിൽ ഇതുപോലത്തെ ബാഡായിട്ടുള്ള പ്രൊഡാക്റ്റ് നമുക്ക് അവർ തരു ഉള്ളൂ നമ്മൾ പൈസ മുടക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഇതുപോലെ തുരുമ്പിച്ചതും അതുപോലെ തന്നെ പൊട്ടിയതും ചളിങ്ങിയതും ഒക്കെ ആണ് നമുക്ക് തരുന്നത് ഇതുപോലത്തെ പ്രൊഡാക്റ്റൊക്കെയാണ് തരുന്നത് അപ്പോൾ ഇമ്മാതിരി പ്രൊഡക്റ്റുകൾ നമുക്ക് നമ്മൾ പറ്റിക്കപ്പെടാൻ പാടില്ല അപ്പം അതുകൊണ്ട് ഇതുപോലെ ഒരു മോശം ചുറ്റിക തന്ന് എന്നെ പറ്റിക്കാൻ നോക്കിയത് കൊണ്ട് ഞാനവർക്കെതിരെ ബാഡ് കമൻറ്സും അതുപോലെ തന്നെ ബാഡ് റിവ്യൂസു ആണ് പറയുന്നത് അപ്പം ഇത്രയുമെ പറയാനുള്ളൂ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക ഓക്കെ